ഹലോ ആ പ്രിൻസിപ്പൾ ആണ് ആ എന്താണ് ആ ആ ആ

മോനാണോ അവധി വേണ്ടത് ഓ എന്ന് പോ എന്നത്തേക്കാണ് പതിനഞ്ചാം തീയതി ആവുമ്പോൾ അപ്പം പിന്നെ കോളേജിൽ വന്നപ്പോൾ പറയാത്തത് എന്ത് ടൂർ ഓക്കെ പോവണമെങ്കിൽ നേരത്തെ നിശ്ചയിച്ചിട്ടല്ലേ ടൂർ പോവുന്നത് അത് ആ ആ അല്ല അടുത്ത അടുത്ത ഒരു ക്ലസ്റ്റർ മീറ്റിംഗ് ഉണ്ട് ഇന്ന് കോളേജിൻറെ അപ്പോൾ പതിമൂന്നും പതിനാലും അത് അത് അത് അത് അതിപ്പം അതിപ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾ ആ നിങ്ങളെ സബ്ജക്റ്റിലുള്ള വേറെ ഒരാൾ കൂടെ ആണ് കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വരുവാണെങ്കിലേ പറ്റുളളൂ അത് അന്നുതന്നെ വരുന്ന മകൻ വരുന്നത് നേരത്തേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമായിരുന്നു ഇപ്പം പതിനഞ്ചാം തീയതിക്ക് ഇനി അധികം സമയം ഇല്ലല്ലോ അടുത്ത ആഴ്ചയല്ലേ അങ്ങനെ ഒരു ആ അല്ല അങ്ങനെ അല്ല ഇതിപ്പം ഞാൻ ഞാൻ മാത്രം വിചാരിച്ചാൽ പോര ഞാൻ ബാക്കിയുള്ള പിന്നെ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ബാക്കി അധ്യാപകരോട് ചോദിക്കണം എനിക്ക് ചോദിച്ചിട്ട് അവർ ആ അവർ ആ അവർ അവർ അവർ ആരെങ്കിലും ആ ക്ലസ്റ്റർ മീറ്റിംഗിൽ അഡ്ജസ്റ്റ് ചെയ്ത് വരാമെങ്കിൽ ഞാൻ തരാം അപ്പം അയ് അതിനകത്ത് ഒരു കാര്യം ചെയ്യൂ അവിടുത്തെ സുനോ അവിടുത്തെ സുനന്ദ മാ സു സുനന്ദ ടീച്ചർ ഉണ്ടല്ലോ സുനന്ദ ടീച്ചർ അല്ല ഒരു കാര്യം ചെയ്യൂ സുനന്ദ ടീച്ചർ സുനന്ദ ടീച്ചർ അവർ ഇതുപോലെ പിന്നെ ഇതിന് ചോദിച്ചിരിക്കുവാണ് അവധി ഒരു കാര്യം ചെയ്യുക സുനന്ദ ടീച്ചറും ആയിട്ടൊന്ന് സംസാരിക്ക് ഏ ആ അത് തന്നെ സുനന്ദ ടീച്ചറുമായിട്ട് സംസാരിച്ചിട്ട് അവർ പകരം വരാനോണ്ട് തയ്യാറാണെങ്കിൽ ഞാനിത് അഡ്ജസ്റ്റ് ചെയ്ത് തരാം ഓ ഓ അല്ല വേണ്ട അല്ല ടൂർ അല്ല ടൂ ടൂർ പോവുന്നു എന്ന് പറഞ്ഞാൽ അത്യാവശ്യ കാര്യം അല്ലല്ലോ അതാണ് ടൂർ എന്ന് പറഞ്ഞാൽ നേരത്തെ വിചാരിച്ച ഒരു വിനോദയാത്ര അല്ലേ ആ ആ ആ അതുതന്നെ ആ ഓ അത് ഞാൻ ഞാൻ ആലോചിച്ചിട്ട് പറയാം മറ്റേ മറ്റന്നാൾ മറ്റന്നാൾ വരുമല്ലോ എന്തായാലും കോളേജിൽ ആ മറ്റ ആ ആ മറ്റന്നാൾ കോളേജിൽ വരുമ്പോൾ വിളിച്ചാൽ മതി ഏ അപ്പം സുനന്ദ ടീ സുനന്ദ ടീച്ചറും മായൊന്ന് സംസാരിച്ച് വയ്ക്കൂ ഞാൻ കഴിയുന്നതും തരാൻ നോക്കാം കേട്ടോ ആ എന്നാൽ ബ വലിയ പ്രതീക്ഷ വെച്ചേക്കണ്ട എന്നാലും പ്രതീക്ഷ കളയുവേം വേണ്ട ആ ശരി ശരി ശരി ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ